ഹലോ എനിക്കൊരു ക്യാബ് ബുക്ക് ചെയ്യണമായിരുന്നു ഞാനിപ്പോൾ മാനന്തവാടി ടൗണിലാണ് ഉള്ളത് അപ്പോൾ അവിടെ അടുത്ത് ഏതെങ്കിലും ക്യാബ് ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് എനിക്ക് കുറച്ച് ദൃതി ഉണ്ടായിരുന്നു വേഗം ഒന്ന് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അതായത് ഇപ്പം ഞാൻ മാനന്തവാടിയിൽ നിന്ന് എനിക്ക് പോകേണ്ടത് ഒന്ന് എറണാകുളത്തേയ്ക്ക് ആയിരുന്നു അപ്പം എനിക്കൊരു ക്യാബ് ബുക്ക് ചെയ്തു കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു എവിടെയായിട്ടാണ് ഉള്ളത് വണ്ടി ആ ഓക്കേ മൈസൂർ റോഡ് ഇല്ലേ ആ ഓക്കേ അപ്പോൾ ഞാനിവിടെനിന്ന് ഒരു ഓട്ടോ ലഭ്യമാണോയെന്ന് നോക്കട്ടെ ഇപ്പോൾ ആരുടെയെങ്കിലും വണ്ടി ഉണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് കയറിയിട്ട് ഞാൻ മൈസൂർ റോഡിലേക്ക് വരാം അപ്പോൾ അതാകുമ്പോൾ നമുക്ക് ഇവിടെനിന്ന് വേഗം നമുക്ക് കൊയിലേരി വഴി അങ്ങ് പോയാൽ മതിയല്ലോ ആ ഓക്കേ ഓക്കേ എന്നാൽ ഞാൻ അങ്ങോട്ടേക്ക് വരട്ടെ എന്നാൽ ആ ഓക്കേ ഓക്കേ ആ എത്ര രൂപ വരും അവിടം വരെ പോകണമെങ്കിൽ ആ ഓക്കേ ഓക്കേ ഓക്കേ ആ ആ ഞാനിപ്പോൾ ഓട്ടോയിൽ വരും ഞാനൊരു ഇപ്പോൾ ഇവിടെനിന്ന് ഓട്ടോയിൽ കയറാൻ വേണ്ടി നിൽക്കുകയാണ് ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് വരാം ആ പെട്ടെന്ന് തന്നെ അവിടെ എത്തുമോ ആ അവിടെ തന്നെയാണോ ഉള്ളത് ആ ഓക്കേ ഓക്കേ ലയിക്കേൻ്റെ ഫ്രണ്ടിൽ ആയിരിക്കും അല്ലേ ഉള്ളത് ആ ഞാൻ എന്നാൽ ഞാനിതാ ഇപ്പോൾ വരാം ഞാനിതാ ഓട്ടോയിൽ കയറി ഞാനിതാ അവിടെയെത്തും ആ ഓക്കേ